ആദ്യം എനിക്ക് വായിച്ച് തുടങ്ങിയപ്പോൾ ഒരു രീതിയിലും ഇഷ്ടപ്പെടാഞ്ഞത് ഞാൻ ഇന്നും ഏറ്റവും കൂടുതൽ ആൾക്കാരോട് വായിക്കണം വായിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകമേ ഉള്ളു അത് എം ടി വാസുദേവൻ നായർ എഴുതിയ രണ്ടാം ഊഴമാണ് കാരണം ആദ്യത്തെ പേജൊക്കെ തുറക്കുമ്പോൾ ഒന്നും തന്നെ നമുക്ക് മനസ്സിലാവില്ല പല പല കാര്യങ്ങൾ പല പല ഭാഷയിൽ അദ്ദേഹത്തിൻ്റേതായ കടുകട്ടി ഭാഷയിൽ എഴുതിയിരിക്കുന്ന എങ്കിൽ വായിച്ച് വായിച്ച് വരുമ്പോൾ നമ്മളുടെ മനസ്സിനെ ഭീമനങ്ങ് കീഴടക്കി അദ്ദേഹത്തിലേക്ക് ലയിച്ച് അവസാന ഭാഗങ്ങളിലേക്കെത്തുമ്പോൾ കരഞ്ഞ് ഒരു ഭീമനോടുള്ള ആരാധനാ പാത്രമായിട്ട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സാധാരണ മനുഷ്യൻ ഇത് വായിച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ കഥയാണത് അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് മാറാനുള്ള പ്രധാന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ എഴുത്തുരീതി തന്നെയാണ് എം ടി വാസുദേവൻ നായർ കാരണം അദ്ദേഹം ഭീമനെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത് ഭീമൻ്റെ ആ അവസ്ഥ ഒരു വ്യക്തിയെയെങ്ങനെ വായനയിലൂടെ വായനക്കാർക്ക് മനസ്സിലാക്കിത്തരാമെന്ന് അല്ലെങ്കിൽ അവരുടെ ആ ആ നിമിഷത്തെ സങ്കടങ്ങളും വിഷമങ്ങളും വികാരങ്ങളും സന്തോഷങ്ങളും എല്ലാ വികാരങ്ങളും എങ്ങനെ കറക്റ്റായിട്ട് നമ്മളിലേക്ക് എത്തിക്കാമെന്ന് എം ടി വാസുദേവൻ നായർക്ക് ശരിക്കറിയാം അതുതന്നെയാണ് എനിക്ക് എൻ്റെ മനസ്സിനെ കീഴ കീഴടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ ആർ ആരോടെങ്കിലും വായിക്കാൻ പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ പറയുക രണ്ടാം ഊഴം വായിക്കാനെ പറയുകയുള്ളൂ എൻ്റെ ബുക്കതാണ്